അലിൻ അല്ലേ ആ ഞാൻ നമ്മുടെ സൂപ്പർവൈസർ ആയിരുന്നു കേട്ടോ ആ നമ്മുടെ പണിയൊക്കെ എങ്ങനെ പോവുന്നു നമുക്ക് അടുത്ത ആ ആ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്കാ പണി തീർക്കാൻ പറ്റുമോ നമ്മുടെ മ്മ് മ്മ് ആ ആ നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന പണി രണ്ടാഴ്ചക്കുള്ളിൽ തീർക്കാനൊക്കെ പറ്റുമോ ആ അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു നമ്മുടെ പണി സൈറ്റിൽ ആർക്കോ എന്തോ പരിക്ക് പറ്റി എന്ന് എന്തായിരുന്നു കാര്യം എന്തായിരുന്നു ആര് ആ ഓ നമുക്ക് എത്ര ബംഗാളി പണിക്കാരുണ്ട് മൊത്തം ഇപ്പോൾ ഇവന്മാർക്ക് ഒക്കെ ഇൻഷുറൻസ് ഉള്ളേതാണോ ആ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട് കുഴപ്പം ആ അവരുടെ വീട്ടുകാരെയൊക്കെ അറിയിച്ചോ അങ്ങനെ വല്ലതും ചോദിച്ചായിരുന്നോ എട്ടു പേരെ വരുന്നുള്ളോ ബാക്കിയുള്ളവന്മാർ എന്താ പറയുന്നത്

അത് കേട്ടിട്ട് ലീവ് എടുത്തോ അവന്മാർ അത് കേട്ടിട്ട് ലീവ് എടുത്തോ അവന്മാർ പിന്നെ ആ ഹാ ഹാ ഹാ ഓ ആ ആ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മുടെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണോ ഇതൊക്കെ ആ ഹാ ഹാ ആ ഹാ ഹാ ആ ഹാ ഹാ ഹാ എല്ലാത്തിലും കണ്ണു വേണം കേട്ടോ അലിനേ എല്ലാവരെയും നോക്കിയേക്കണം ആ എല്ലാം ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർക്കെല്ലാം ഇൻഷുറൻസ് എടുത്ത് കൊടുത്തേക്കണം ആരെങ്കിലും എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി

ആ ആ ഓക്കെ എല്ലാരുടെയും സേഫ്റ്റി ആദ്യമേ നമ്മൾ നോക്കണം കേട്ടോ പണിക്കിടയ്ക്ക് അങ്ങനെയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണിയെ ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മുടെ ഗുഡ്വില്ലിനെ ബാധിക്കും അത് ആമാ അതുകൊണ്ട് എല്ലാവരുടെയും കാര്യം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണം ആമാ ആ ഇൻഷുറൻസ് ഇല്ലേ എല്ലാവർക്കും ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൊടുത്തോ ഇല്ലാത്തവർക്ക് ഈ പണി ചെയ്ത ആൾക്ക് പരിക്കു പറ്റിയ ആൾക്ക് എന്തെങ്കിലും കൊടുക്കണോ എന്തെങ്കിലും ഇൻസെന്റീവ് പോലെ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ ആ ഓക്കെ ഓക്കെ

റെസ്റ്റ് പറഞ്ഞേക്കുവാണോ ആ വേറെ എന്തെങ്കിലും അപകടത്തിനൊക്കെ സാധ്യതയുണ്ടോ ഇപ്പം കണ്ടിട്ട് ആ നമ്മുടെ ഈ രണ്ടാമത്തെ നിലയൊക്കെ തേക്കുമ്പഴേ പണിക്കാരൊന്ന് നോക്കിയേക്കണം കേട്ടോ കുളിപ്പിക്കാൻ നിൽക്കേണ്ട വൃത്തി കുറഞ്ഞാലും കുഴപ്പം ഇല്ല പണി എടുത്താൽ മതി

ആ ആ